ഹലോ മാഡം ഞാനിവിടെ ഇലെക്ട്രിഷ്യൻ എൻ്റെ വീട്ടിൽ പ്ലമ്പിങ്ങിൻ്റെ ഒക്കെ കാര്യത്തിനുവേണ്ടി വിളിച്ചതായിരുന്നു എൻ്റെ വീട്ടിൽ വയറിങ് ഒക്കെ ലൈറ്റ് സൗകര്യത്തിനു ഇരുട്ടൊക്കെ എല്ലാം ഒന്ന് ചെയ്യാനുള്ളതാണ് അ അതെ രണ്ടുനില വീട് രണ്ടുനില വീട് ഒരു നൂറ് സ്ക്വർ ഫീറ്റൊക്കെ വീതി ഉള്ളതാണ് എൻ്റെ വീട് ഞങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ ഐറ്റംസും വെക്കുന്നുണ്ട് അപ്പം ആ എല്ലാം ഉണ്ട് അയ്യോ മാഡം അത് ഇച്ചിരി കൂടുതൽ റേറ്റ് ആണ് അപ്പോൾ ഒന്നു കുറച്ചു തരാൻ പറ്റുമോ

മാഡം അത് ഇച്ചിരികൂടി കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എത്രയാണ് മാഡം പണിക്കൂലി വരിക അ ഓക്കേ മാഡം ഇതെവിടെ കിട്ടും ഏറ്റവും അടുത്തുള്ള മാഡം ആ ഓക്കേ മാഡം ആ ഓക്കേ മാഡം സോളാർ സിസ്റ്റം ഇതിൽ ഉൾപ്പെടുവോ അപ്പോൾ റേറ്റിൻ്റെ കാര്യം അ അപ്പോൾ പണിക്കൂലി മാത്രം മതി അല്ലേ മാഡം

ഓക്കേ മാഡം അപ്പോൾ എന്തായാലും ഞാൻ വന്നു നോക്കാം

അ ഓക്കേ മാഡം